ഹലോ ആ അതെ അതെ രോമം കൊഴിഞ്ഞു പോവാനോ ഇത് ഈ പിന്നെ എപ്പോഴെങ്കിലും തോന്നിയിനോ ഇന്ന് തോന്നിയതാണോ ഇത് ആ പേർഷ്യൻ ക്യാറ്റാണോ ആ ആഹ് അതിന് ഫുഡൊക്കെ മര്യാദയ്ക്ക് കൊടുക്കലുണ്ടോ ഫുഡ് ഒക്കെ മര്യാദയ്ക്ക് കൊടുക്കലുണ്ടോ ആ ഷുഗർ കുറച്ച് കുറച്ച് കൊടുത്തു നോക്കേ ആ ഷുഗർ അധികമായിട്ട് കൊടുക്കുമ്പോഴാണിത് ഇങ്ങനെ പൂച്ചയിനകത്ത് കണ്ടുവരുന്നത് അത് പിന്നെ ക്യാൻസർ ആയി പിന്നാ ഐസ് ക്രീം ആ എന്നാൽ ചിലപ്പം അതായിരിക്കും ഷുഗർ കൊടുക്കരുത് അതുപിന്നെ ക്യാൻസർ ആയിട്ട് മരണത്തിനുവരെ കാരണമാകും ആ അപ്പോൾ ഇനി കൊടുക്കുമ്പോൾ ചോറിൽ മഞ്ഞൾപ്പൊടി ഇല്ലേ മഞ്ഞൾ ഇല്ലേ ആ അതിട്ട് വേവിച്ചിട്ട് കുറച്ച് മുട്ടയോ പാലോ ചേർത്തിട്ട് കൊടുത്താൽ മതി അല്ല അട്ടിൻപാൽ കിട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് ഉത്തമമായിരുന്നു ആ വേറെ എന്തെങ്കിലും ആ അത് ആവിയിലിട്ട് വേവിക്കുക

കേൾക്കുന്നിലെ ആ ആവിയിലിട്ടിട്ട് പുഴുങ്ങുക

ആ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നു തോന്നുന്നല്ലോ ആ ആ ആ അപ്പോൾ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്തുനോക്ക് കേട്ടോ ആ ആ ഓക്കെ